എൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്തൊക്കെയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാഭ്യാസം നേടിയ വ്യക്തിയാണ് നമുക്ക് ചെറുപ്പത്തിൽ ചെറിയ ക്ലാസിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട് വിദ്യാ ധനം സർവ്വധനാൽ പ്രധാനം എന്നൊരു വാചകം തീർച്ചയായും അത് എക്കാലത്തും പ്രസക്തിയുള്ളൊരു വാചകം തന്നെയാണ് വിദ്യ തന്നെയാണ് ഏറ്റവും വലിയ ധനം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകു എന്നാണ് നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാന നായകരിലൊരാളായ ശ്രീ നാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചോതുവാൻ പല മഹത് വ്യക്തികളും പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് അത്തരത്തിലൊന്നാണ് ദക്ഷിണാഫ്രിക്കൻ മുൻ പ്രസിഡൻറ്റായിരുന്ന നെൽസൺ മണ്ടേലയുടെ ഒരു വാചകം എജുക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് വി ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ് വിദ്യാഭ്യാസമാണ് ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ആയുധം എന്തിനാണ് ലോകത്തെ മാറ്റി മറിക്കാൻ കഴിവുള്ള ഏറ്റവും ശക്തിയേറിയ ആയുധമാണ് വിദ്യാഭ്യാസം എന്നാണ് നെൽസൺ മണ്ടേല പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല വിദ്യാഭ്യാസം നേടിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഒരു ഉന്നത ഉദ്യോഗം നേടുവാൻ സാധിച്ചത് അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്നുള്ള ഒരു സ്ഥാന മാനങ്ങളോ ബഹുമാനങ്ങളോ കിട്ടില്ല അത് ഈ ജോലി മൂലമാണ് കിട്ടുന്നത് ജോലി കിട്ടാൻ കാരണം വിദ്യാഭ്യാസം നേടിയതാണ് അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ കുട്ടികളും മറ്റെല്ലാ ചിന്തകളും വെടിഞ്ഞ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകേണ്ടതാണ് വിദ്യാഭ്യാസം നേടേണ്ടതാണ് വിദ്യയിൽ വിദ്യാഭ്യാസം നേടുന്നതിലൂടെ ഉന്നത ജീവിത നിലവാരം കൈവരിക്കാമെന്ന് മാത്രമല്ല സംസ്കാര സമ്പന്നരാകാനും കൂടി വിദ്യാഭ്യാസം സാധി നമ്മെ പാകപ്പെടുത്തും നമ്മിൽ സംസ്കാരവും വിവേകവും വിവേചന ചിന്തയും യുക്തി ചിന്തയും വിമർശനാത്മക ചിന്തയും വളർത്തുവാനായിട്ട് നല്ല നല്ല വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ